ഹലോ ആ ഇത് മറ്റേ സ്വിഗ്ഗീന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത റെസ്റ്റോറൻറ്റ് അല്ലേ ആ അതുതന്നെ അതുതന്നെ ആ ഞാൻ കഴിഞ്ഞ കുറച്ചു നേരമായുള്ളു ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഫുഡിന് എന്തോ പഴക്കം ഇതായത് പോലെ തോന്നുന്നുണ്ട് ഭയങ്കര എന്തോ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ആ അത് അറിയത്തില്ല ഇനിയിപ്പോൾ എന്തേലും കുഴപ്പമുണ്ടോന്നും അറിയത്തില്ല നിങ്ങൾ അയച്ച ഫുഡ് എന്തോ എനിക്ക് വലിയ ഇൻറ്റെറസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല കാരണം അത് കഴിക്കാൻ എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് റിട്ടേൺ എടുക്കൂ ആ അല്ല എനിക്കിത് കഴിക്കാൻ താല്പര്യമില്ല അപ്പോൾ സൊ എനിക്കിത് റിട്ടേൺ എടുത്താൽ നല്ലതായിരിക്കും കാരണം നമുക്ക് ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നും അറിയത്തില്ലലോ ആ നിങ്ങൾ അയച്ച പുള്ളിനെ തന്നെ വിട്ടാൽ മതി നമ്മൾ ഇത് കഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എന്തോ സ്മെല്ല് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നി അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആരേലും വിട്ട് ഇതൊന്ന് റിട്ടേൺ എടുപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ആ അത് കുഴപ്പമില്ല നിങ്ങൾ ഫുഡ് റീപ്ലേസ് ചെയ്താലും മതി വേറെ അയച്ചാലും മതി ഇല്ല ഇല്ല പ്രശ്നമില്ല നിങ്ങൾ നോക്കിയിട്ട് ആരേലും വിട്ടിട്ട് ഈ ഫുഡ് റിട്ടേൺ എടുത്തിട്ട് എനിക്ക് വേറെ ഫുഡ് തന്നാലും മതി ഇല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോവാൻ ആയിരുന്നു നിങ്ങൾ ഫുഡ് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് ചെയ്താലും എനിക്ക് സീനില്ല ആ ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേണം കേട്ടോ എനിക്കൊരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ പുറത്ത് ഇറങ്ങും എനിക്ക് പോവേണ്ട പുറത്തേക്ക് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഓക്കേ ഓക്കേ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നാൽ മതി ആയിക്കോട്ടെ താങ്ക് യൂ താങ്ക് യൂ